ഹലോ ഡോക്ടർ ഡോക്ടർ അല്ലേ ആ ഞാൻ ഡോക്ടറെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ എനിക്ക് എന്തൊക്കെ ഡോക്ടറെ മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രാത്രി ഉറക്കമില്ല പിന്നെ പിന്നെ യെസ് മറ ഭയങ്കര മറവി ഞാൻ ആ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്ന ആളൊന്നും അല്ല ആരായിട്ടും അങ്ങനെ പുറത്ത് ഇടപഴകുന്ന ആളൊന്നുമല്ല പിന്നെ എന്താണെന്ന് അറിയില്ല രാത്രി ആയാൽ ഉറക്കമില്ല ഭയങ്കര അസ്വസ്ഥത രാവിലെ നേരത്തെ എണീക്കും

ആ യോഗ ഒന്നും ചെയ്യലില്ല ഏഹ് ഇല്ല ഏഹ് വേറെ മരുന്നൊന്നും കഴിക്കുന്നില്ല

കാലത്ത് ഒരു അഞ്ചരക്ക് എണീക്കും

ആ ഫോൺ ഒക്കെ ഉപയോഗിക്കും

ആ ആ ആ ആ ആ ആ ഞാൻ അങ്ങനെ എങ്ങോട്ടും പോവലൊന്നുമില്ല ആ ആ